എൻ്റെ വീടിനടുത്തുള്ള ആശുപത്രികളിൽ സ്ഥിരമായി കണ്ട് വരുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ വലിയ തിരക്കും നീണ്ട കാത്തിരുപ്പ് സമയവും വലിയ ക്യുവും ഒക്കെ അപ്പോൾ അത്തരം സംഭവങ്ങളിൽ നിന്നൊരുപാട് മോശം അവസ്ഥകളുണ്ടാകും ഒരുപാട് മോശം ഫലങ്ങൾ സംഭവിക്കാം അതിലൊന്നെന്നു പറയുമ്പോൾ അത്യാവശ്യമായി ചികിത്സ വേണ്ടുന്നൊരു രോഗിക്ക് വേണ്ട സമയത്തിനുള്ളിൽ ചിലപ്പോൾ ചികിത്സ കിട്ടാതെ വരാം അതുമൂലം ആൾക്ക് പല മോശം ഫലങ്ങളും സംഭവിച്ചേക്കാം പിന്നതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇപ്പോൾ ഒരുപാടത്യാവശ്യമായി ചികിത്സ വേണ്ടുന്നൊരാളല്ലെങ്കിൽ പോലും ഒരുപാട് നേരമിങ്ങനെ വലിയ തിരക്കിൽ പെട്ട് നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകളുടെ രോഗാവസ്ഥ കൂടുതൽ രൂക്ഷമായി വരാനും സാദ്ധ്യതയുണ്ട് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം പിന്നെ നീണ്ട കാത്തിരുപ്പു വരുമ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്നു വെച്ചാൽ അതായത് ഇത്രയും വയ്യാത്ത ആളുകൾ രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും ഇത് ഇത്രയും ഒരുപാട് ഈ തിരക്കിൽ പെട്ട് ഈ നീണ്ട കാത്തിരിപ്പു സമയത്തിരിക്കുമ്പോൾ അവർക്ക് പല വിധ മാനസിക സംഘർഷങ്ങളും പലവിധബുദ്ധിമുട്ടുകളും ഉണ്ടാകാം പിന്നതുപോലെ തന്നെ ഇത്രയും ആളുകൾ വരുമ്പള്ള് അതനുസരിച്ച് എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള ചികിത്സയും സേവനങ്ങളും നൽകാൻ ആവശ്യമുള്ളത്രയും നേഴ് നേഴ്സ്സ് നേഴ്സ്മ്മാരും ഡോക്ടർമാരും ഹോസ്പിറ്റലിൽ ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ ഒരു ഒരു ചെറിയ ഒരു ഹോസ്പിറ്റലാണെന്ന് ആണെന്നിരിക്കട്ടെ അപ്പം അവിടൊരു വലിയ തിരക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള മെഡിക്കൽ ഉപകരണങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാകണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള സേവനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും വലിയ തിരക്കും ഒക്കെ ആൾക്കൂട്ടവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നഴ്സുമാർക്കും ഡോക്ടർമാർക്കും അത് സ്ട്രെസും ഒരുപാട് മാന മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ അവർക്കു വേണ്ട വിധത്തിൽ നല്ല ശ്രദ്ധയോടു കൂടി അവരുടെ സേവനങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതുമൊരു ഇതിൻ്റെ ഒരു മോശം ഫലമാണ് പിന്നെ ഈ ഇങ്ങനത്തെ ആ വലിയ ആൾക്കൂട്ടം ഹോസ്പിറ്റലിലുള്ള ജനതിരക്കിൻ്റെ വേറൊരു പാർശ്വഫലമെന്താണെന്നു വെച്ചാൽ ഈ ഇത്രയും പല പല വിധ അസുഖങ്ങളുള്ള ഇത്രയും ആളുകൾ ഒരേ സമയത്തൊരു സ്ഥലത്ത് സമ്പർക്കം ചെലുത്തുമ്പോൾ അതനുസരിച്ച് രോഗങ്ങൾ പടരാനുള്ള സാദ്ധ്യത കൂടും അപ്പോൾ പല പല അസുഖങ്ങളുള്ള രോഗികൾ ഇവിടെ ഉണ്ടാകാം അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ രോഗത്തിന് ചികിത്സക്കായി വന്ന ആളാണെങ്കിൽ തന്നെ ചിലപ്പം അതിനേക്കാളും കൂടുതൽ രൂക്ഷമായൊരു രോഗം മറ്റൊരാളിൽ നിന്ന് പിടിപെടാനുള്ള ചാൻസുണ്ട് അതിപ്പം ഇവരുടെ കൂടെ വന്ന ആളുകൾക്കായാലും ശരി മറ്റൊരു മറ്റാളുകളിൽ നിന്ന് വേറെ രൂക്ഷമായ രോഗങ്ങൾ പിടിപെടാനുള്ള സാദ്ധ്യത ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇത്ര വലിയ നീണ്ട കാത്തിരുന്ന സമയവും വലിയ തിരക്കും ഉള്ളപ്പോൾ ഉള്ള ചില മോശം ഫലങ്ങൾ